പല രീതികളും അല്ലെങ്കിൽ നമ്മുടെ ശരീരം കൊണ്ടും നമ്മുടെ മനസ്സുകൊണ്ടും ഏറ്റവും കൂടുതൽ നമ്മൾ സമർപ്പിച്ച് ചെയ്യുന്ന ഒന്നാണ് നൃത്തം എന്ന് പറയുന്നത് നമ്മളതുപോലെ കഷ്ടപ്പെട്ടാൽ നൃത്തം നമുക്കത് പൂർത്തീകരിക്കാൻ പറ്റത്തുള്ളൂ അതാണ് അപ്പം നൃത്തം ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണ് നമ്മുടെ കണ്ണിലുണ്ടാകുന്ന ഓരോ അനക്കങ്ങൾ മാറ്റങ്ങൾ കണ്ണും കൊണ്ട് നമ്മൾ അഭിനയിക്കുമ്പോഴത്തേക്കും കാണുന്നവർക്ക് നമ്മൾ അവരുടെ വികാരം നമ്മളെന്താണോ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് ആ വികാരം അവർക്ക് മനസ്സിലാവും അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ പറയാതെ തന്നെ അവരോട് നമ്മൾ നമ്മുടെ ഇനി നമ്മളെന്താണ് പറയാനുദ്ദേശിക്കുന്നത് അത് നമ്മൾക്ക് നമ്മൾ മനസ്സിലാക്കികൊടുക്കുകയാണ് അവർക്ക് അപ്പം ഈ നൃത്തം കൊണ്ട് മനസ്സുകൊണ്ട് നമ്മൾ ഒരാളെ എന്നാണ് ഒരാളെ നമ്മൾ അറിയുന്നതിനെക്കാളും നൃത്തത്തിൻ്റെ പ്രത്യേകതയെന്ന് പറയാൻ നമ്മുടെ പ്രവർത്തി നമ്മുടെ ചുവട് നമ്മുടെ ചലനം ഇതൊക്കെ വച്ചിട്ടാണ് നമ്മൾ മറ്റൊരാളുടെ മറ്റൊരാൾ ഉള്ളിലുള്ള വികാരത്തെ നമ്മളുണർത്തുന്നത് അപ്പം ഈ നൃത്തത്തിൻ്റെ കാര്യം പറയാനാണെങ്കിൽ മനസ്സും കൊണ്ട് നമ്മൾ നൃത്തം ചെയ്താൽ നമ്മുടെ ശരീരവും നമ്മുടെ എന്താണ് തലച്ചോറും അതിനനുസരിച്ച് വഴങ്ങി വഴങ്ങത്തുള്ളൂ അതുപോലെതന്നെ എന്നാൽ മാത്രമേ നമ്മൾ കാണുന്ന പ്രേക്ഷകർക്ക് നമ്മുടെ വികാരം മനസ്സിലാവത്തുള്ളൂ അവരുടെ ഉള്ളിലുള്ള വികാരം അങ്ങനെ പുറത്ത് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അപ്പം നൃത്തമെന്ന് പറയുന്ന ഒരു കലാരൂപം വളരെ വികാരത്തെ വെളിയിൽ കൊണ്ടുവരാൻ പറ്റുന്ന വലിയൊരു കലയാണ് നൃത്തം അത് അതിലൊന്നാണ് മോഹിനിയാട്ടം കുച്ചിപ്പുടിപോലുള്ള എന്താണ് മോഹിനിയാട്ടം പ്രേതേകിച്ച് അത് ഒരു കലാരൂപമാണ് വലിയൊരു കലാരൂപമാണ് അതിൽ പല രീതിയിലുള്ള കഥകൾ പറയുന്നുണ്ട് ആ കഥകൾ വച്ച് മനസ്സിലാക്കുന്നവരുണ്ട് അതുപോലെ തന്നെയാണ് കഥകളി കഥകളി ഒരു കഥയേ മുൻനിർത്തിക്കൊണ്ടാണ് കഥകളി നമ്മൾ കളിക്കുന്നത് നമ്മൾ കഥകളി ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഭാവമാറ്റമാണ് മറ്റുള്ളവരുടെ ഉള്ളിലുള്ള വികാരത്തെ വെളിയിലെടുക്കുന്നത് ഇപ്പം മറ്റ് രീതിയിലുള്ള കല ഡാൻസ് നൃത്തമാണെങ്കിലും മറ്റു രീതിയിലുള്ള നൃത്തമാണെങ്കിൽ നമ്മളിപ്പം ഉല്ലസ്സിക്കുകയാണെങ്കിൽ നമ്മൾ ഉല്ലസിക്കുന്ന രീതിയിലുള്ള നൃത്തമാണ് ചെയ്യുന്നതെങ്കിലോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളുടെ എന്ന് എന്നാണ് അവരുടെ ഉള്ളിലും ഒരു ഉല്ലാസം അവർ നമ്മുടെ കൂടെ തന്നെ നൃത്തം ചെയ്യുകയും ചെയ്യും